തീർച്ചയായിട്ടും കലയിലും കരകൗശലത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെ സോഷ്യൽ മീഡിയ നന്നായി സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇപ്പോള് തോന്നുന്നത് കാരണം എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കില് തന്നെ ഇപ്പോള് യൂ ട്യൂബ് ചാനലുകൾ ഉണ്ട് അപ്പോള് അത് എന്തുകൊണ്ടാണെന്ന് വച്ചുകഴിഞ്ഞാല് നമ്മള് വീട്ടിലിരുന്ന് വീട്ടമ്മമാരായാലും ചെറിയ കൊച്ചുമുതൽ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ഒരു അമ്മ ആയാലും അപ്പനായാലും ആരായാലും അവർക്ക് തീർച്ചയായും വീട്ടിലിരുന്ന് ചെയ്താൽപോലും അത് ഇന്നത്തെ പുറംലോകത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും സോഷ്യൽ മീഡിയ നമുക്ക് ചെയ്ത് തരുന്നുണ്ട് എന്ത് ഇപ്പോള് ഒരു നൃത്തം ആയിക്കോട്ടെ ഒരു പാട്ടായിക്കോട്ടെ അല്ലെങ്കില് എന്തെങ്കിലും ക്രാഫ്റ്റ് മെയ്ക്കിങ്ങ് എന്ത് വന്ന്തന്നു തന്നെയായാലും അവര് അത് അപ്ലോഡ് ചെയ്ത് അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് യു ട്യൂബിൽ ഇട്ട് അത് വൈറലായി അത് പിന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്ത് ചിലപ്പോള് അത് നല്ലതാക്കി അത് വാർത്തകളിലും ചാനലുകളിലൊക്കെയും വന്നുകഴിഞ്ഞ് ആ വ്യക്തിയെ ആ ഉണ്ടാക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പ്രശസ്തി അവരുടെ പേര് നന്നായി നമ്മടെ നാട്ടില് പ്രശസ്തി ആർജ്ജിക്കുന്ന ഒരുപാട് കാര്യങ്ങള് നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പോള് ഇന്നത്തെ കാലഘട്ടത്തില് അതിന് ഒരുപാട് ഉപകാരമാണ് അപ്പോള് അതിനായിട്ട് യൂ ട്യൂബ് ചാനലുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോള് അതൊരു വ്യക്തി ആയിട്ടാവാം ചിലപ്പോള് ഒരു ഗ്രൂപ്പ് ആയിട്ടാവാം അതുപോലെ തന്നെ ഒരു കുടുംബമായിട്ട് ഇപ്പൻ അ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഒരു യു ട്യൂബ് ചാനല് തുടങ്ങി അവര് ചെയ്യുന്ന പാട്ട് അവര് ചെയ്യുന്ന ഡാൻസ് അവരുടെ മെയ്ക്കിങ്ങ് അതൊക്കെയും അത് മറ്റുള്ളവർക്ക് തന്നെ ഒരു പ്രചോദനമാവും അത് ഇപ്പോള് പ്രായത്തിലിരിക്കുന്ന ഒരു വല്യമ്മച്ചി തന്നെ ആയാലും അവര് ചിന്തിക്കും എനിക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കേണ്ടതെന്ന് ചിന്തിച്ചാല്പോലും ഇപ്പോള് അതിൻ്റെ ആവശ്യമില്ല കാരണം വീട്ടിലിരുന്ന് ആ വല്യമ്മച്ചി എന്തെങ്കിലും ഒരു നൃത്തമോ പാട്ടോ ചെയ്ത് തന്നെ ആയാലും സോഷ്യൽ മീഡിയ വഴി അത് യു ട്യൂബ് വഴി അത് പുറത്തേക്കു വരുന്നതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ മുന്നില് ഒരു വിലയുണ്ടെന്നാണ് എനിക്ക് അഭിപ്രായം കാരണം ഈ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് യൂ ട്യൂബ് ചാനലാണ് അതിന് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് മാറുന്നത് അതേത് തരം പ്രായം ആയിക്കോട്ടെ ഒരു സുഖമില്ലാത്ത കുട്ടി ഒരു അസുഖം ബാധിച്ച ആളാണ് ഒരു തളർന്ന ആളാണ് ശരീരത്തിനു താഴെ അതായത് അരയ്ക്ക് താഴെ തളർന്നായിക്കോട്ടെ പക്ഷേ അയാളുടെയൊരു ശബ്ദം അയാളുടെയൊരു എന്താ പറയുക അയാളിലുള്ള കഴിവുകള് പുറത്ത് വരുന്നത് യൂ ട്യൂബ് ചാനല് വഴിയാണ് അങ്ങനെ നോക്കുമ്പോള് യൂ ട്യൂബ് ചാനല് സോഷ്യൽ മീഡിയ വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ വ്യക്തിയും അവരുടെ കഴിവനുസരിച്ച് അവരുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുത്ത് യൂ ട്യൂബ് ചാനല് വഴി ലോകത്തെ അറിയിക്കാൻ സോഷ്യൽ മീഡിയ എന്നൊരു ഉപകരണം നമ്മുടെ കയ്യിലുള്ള കാലം വരെ ആ വ്യക്തിക്ക് ഒരു കാലത്തും കഴിവില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഓരോ വ്യക്തിയുടെയും കഴിവ് പുറത്തെടുക്കാൻ കഴിവുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ യൂ ട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം